വയനാട് ജില്ലയിലെ ഇപ്പോൾ ആളുകൾ നേരിടുന്ന ചില വെല്ലുവിളികൾ എന്തൊക്കെയാണ് വെല്ലുവിളിയും പ്രശ്നങ്ങളും എന്തൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ട് നമുക്ക് മര്യാദയ്ക്കുള്ളൊരു റോഡ് ഇല്ല അതായത് കൂടുതലും കുണ്ടും കുഴിയും ആയിട്ടുള്ള റോഡുകളാണ് ഒന്നും മര്യാദയ്ക്ക് ഉള്ളൊരു റോഡുകളില്ല അതുകൊണ്ടുതന്നെ ഒരുപാട് പേരുടെ ജീവനൊക്കെ അവിടെ പൊലിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ കുറേ ആക്സിഡന്റുകൾ കാര്യങ്ങൾ പക്ഷേ ഇവർ സർക്കാർ കുറേ പൈസ കൊടുക്കുന്നുണ്ടെങ്കിലും ഇവിടെ കൂടുതലും ആൾക്കാർ മുക്കും അതായത് ഇപ്പോൾ സർക്കാർ ഒരു കോടി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ അമ്പത് ലക്ഷം അവർ മുക്കിയിട്ട് അമ്പത് ലക്ഷമാണ് അമ്പത് ലകഷത്തിൻ്റെ പണിയാണ് നമുക്ക് റോഡിൽ ചെയ്യുക അത് ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരു വർഷം ആകുമ്പോഴേക്കും ഒരു വർഷം വേണ്ട അവർ പണി തീർന്ന് പോവുമ്പോഴത്തേക്കും അത് പൊളിയാൻ തുടങ്ങും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊഴിലവസരങ്ങൾ വയനാട് ജില്ലയിലെ പൊതുവേ പരിമിതമായ തൊഴിലവസരങ്ങളാണ് നമ്മളിപ്പോൾ എത്ര പഠിച്ചിട്ടുണ്ടെങ്കിലും വയനാട് ജില്ലയിൽ ഒരു പതിനഞ്ചായിരത്തിൽ കൂടുതൽ സാലറി ഉള്ള ജോലി നമുക്ക് കിട്ടില്ല പുറത്തൊക്കെയാണ് കൂടുതലും അതായത് അതുകൊണ്ടുതന്നെ പുറമേയുള്ള രാജ്യങ്ങളായിട്ടും അതായത് പുറമെയുള്ള ജില്ലകളിലായിട്ട് എല്ലാവരും അത് ആശ്രയിക്കും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ ഇങ്ങനെയുള്ള അതായത് മലപ്രദേശമാണല്ലോ കൂടുതലും നല്ലവണ്ണം മഴയൊക്കെ പെയ്താൽ ഉരുൾപൊട്ടലിനും വെള്ളപ്പൊക്കത്തിനും ഉള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടുതന്നെ ആൾക്കാർക്ക് ശരിയായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ ഇല്ല അങ്ങനെ പല പ്രശ്നങ്ങളും വയനാട് ജില്ലയിലുണ്ട്